എൻ്റെ പേര് അക്മൽ എന്നാണ് ഞാൻ ആദ്യമായിട്ട് പാചകം ചെയ്യാൻ തുടങ്ങിയത് ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുമ്പം ഹോസ്റ്റലിലെ ഫുഡ്ഡൊക്കെയായിരുന്നു കിട്ടിക്കോണ്ടിരുന്നത് അപ്പം ഹോസ്റ്റൽ ഫുഡ്ഡ് അത്ര വലിയ നല്ലതല്ല അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ന്യൂഡിൽസൊക്കെ ഞാൻ ആദ്യം പാചകം ചെയ്ത് തുടങ്ങിയത് നൂഡിൽസ് വയ്ക്കാൻ വളരെ എളുപ്പമാണല്ലോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പാചകം ചെയ്തത് ന്യൂഡിൽസാണ് അതിനുശേഷം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാംകൂടി ഹോസ്റ്റലിൽ വച്ചു തന്നെ ഒരു ദിവസം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കി അപ്പോൾ ഞാൻ തന്നെയാണ് അതിനു മുൻകൈ എടുത്തിരുന്നത് അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ആദ്യമായിട്ട് ബിരിയാണി വച്ചു എന്തോ അതു നല്ല രസമായിട്ട് എനിക്ക് തോന്നി അതാണെൻ്റെ ലൈഫിലെ ഏറ്റവും നല്ലൊരു പാചകത്തിൻ്റെ എക്സ്പീരിയൻസ് ഇപ്പോൾ ഞാൻ ഒരു വിധം എല്ലാം ഞാൻ കുക്ക് ചെയ്യാറുണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് കുക്ക് ചെയ്യുന്നത് എല്ലാ സാധനവും ഞാൻ ഇപ്പോൾ ഒരുവിധം ഉണ്ടാക്കും പിന്നെ ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ ചെയ്യുന്നത് ചോറും അതുപോലെ നമുക്കുള്ള കറികളൊക്കെ ഞാൻ വർക്ക് ചെയ്യുമ്പോഴും ഞാൻ ചോറും കറിയുമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാറാണ് ചെയ്യാറ്